നമുക്കറിയാവുന്നതു പോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ മാതൃഭാഷയാണ് മലയാള ഭാഷയെന്നുള്ളത് എന്തിരുന്നാലും മലയാളഭാഷയെക്കുറിച്ചു സാധാരണയായിട്ട് ഒരുപാടു തെറ്റിദ്ധാരണകള് എന്ത് തെറ്റിദ്ധാരണകള് ഇവിടെ നിലനില്ക്കുന്നുണ്ട് പ്രധാനമായിട്ടുള്ള ഈ മലയാള ഭാഷ തെറ്റിദ്ധാരണ എന്നുള്ളത് മലയാളം എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം ഭാഷയാണെന്നുള്ളത് കേരളത്തിൽ മാത്രമാണ് മലയാളം സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്നുള്ളത് പക്ഷേ നമ്മള് ഈ മലയാള ഭാഷ എടുത്തു പരിശോധിക്കുക കേരളത്തിലും കേരളത്തിനപ്പുറം തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളും അതുപോലെ കർണാടകയിലെ ചില ഭാഗങ്ങളും ഇവിടെ ഒരുപാട് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള മലയാളി കമ്മ്യൂണിറ്റീസും ഈ ഒരു മലയാളത്തെ തന്നെ അവരുടെ ഒഫീഷ്യൽ അവരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്നുള്ളത് അങ്ങനെ ഈ ഒരു തെറ്റിദ്ധാരണ നമുക്കു തിരുത്താൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് മലയാളം തമിഴിനോടുമായിട്ടു സാദൃശം ഭാഷയുമായിട്ട് സാദൃശ്യമുണ്ട് എന്നുള്ളതാണ് എന്ന് മലയാളവും തമിഴും ഭാഷാപരമായിട്ടു ചില ഭാഗങ്ങൾ അതു രണ്ടും രണ്ടും പരസ്പരം കൈമാറുന്നുണ്ടെങ്കിലും മലയാളത്തിനും അതുപോലെ തമിഴിനും വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ സ്ക്രിപ്റ്റ് അക്ഷരമാലകളും അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ് മലയാളത്തിന് അതിന്റേതായിട്ടുള്ള സ്ക്രിപ്റ്റും അതിന്റേതായിട്ടുള്ള ഗ്രാമർ കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ തമിഴും അത് തമിഴിലും അതിന്റെപോലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംവിധാനങ്ങളാണ് നമുക്കു കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം മലയാളം സംസ്കൃതവുമായിട്ട് അതിൽ നിന്ന് അതിൽ നിന്ന് ആകർഷകമായിട്ടാണ് അതിൽ നിന്ന് ഇൻഫ്ലുവൻസായിട്ടാണു മലയാളം ഉണ്ടാക്കിയത് അതുപോലെ തമിഴ് എന്നുള്ളത് അതു പരമ്പരാഗതമായിട്ടുള്ള ഒരു ഭാഷയാണെന്നുള്ളതാണ് അതുപോലെ അത് ഇങ്ങനെയൊരു കാര്യങ്ങളന്നു നമുക്ക് മലയാളവും തമിഴും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊരു പ്രധാനമായിട്ടുള്ള തെറ്റിദ്ധരണ എന്നുള്ളത് മലയാളം പഠിക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ളതാണ് മലയാളത്തിന് ഒരുപാട് വളരെ പ്രയാസമായിട്ടുള്ള ഗ്രാമര് ഉണ്ടെങ്കിലും അതിനു വ്യാകരണമുണ്ടെങ്കിലും അതു പഠിക്കാൻ അത്ര അസാധ്യമായ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഡ്രാവിഡിയൻ ഭാഷയൊക്കെ അറിയുന്ന ഒരു മനുഷ്യനിക്ക് മലയാളം എന്നുള്ളതു പെട്ടെന്നന്താണ് അത് ഗ്രഹിച്ചെടുക്കാനും അതു പഠിക്കാനും അതു മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മലയാളികളും നല്ല വളരെ വളരെ സമ്പുഷ്ടമായിട്ടു മലയാളം സംസാരിക്കുന്നു എന്നുള്ളതു വളരെ തെറ്റുമാണ് ഇത് മലയാളമെന്നുള്ളതു മലയാളികളുടെ മാതൃഭാഷ ആണെന്നെങ്കിലും ചിലരെന്താകുന്നുണ്ട് അവിടെ തമിഴും അതുപോലെ മറ്റു ഭാഗങ്ങളും അതുപോലെ മലയാളം തന്നെ പല രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണു വാസ്തവം